ഇപ്പൊൾ മഴകാലമായതുകൊണ്ട് തന്നെ ഒരുപാട് ജലജന്യ രോഗങ്ങളും പകർ പകർച്ച വ്യാധികളൊക്കെ ഉണ്ടാകുന്നൊരു സമയാണിത് ആ എന്താ പറയുക ജലത്തിലൂടെ വയറിളക്കമായിട്ടും അ പനി ഫീവറായിട്ടും ബാക്ടീരിയൽ ഫങ്കസ് രോഗങ്ങളായിട്ടും ഒക്കെ ഒരുപാട് രോഗങ്ങള് പടർന്നു പിടിക്കുന്നൊരു സി സാഹചര്യം കൂടെയാണ് മഴക്കാലത്തിൽ സാധാരണ കണ്ടുവരുന്നത് അപ്പം മഴക്കാല സമയത്ത് നമ്മളെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പം അതിനുവേണ്ടിട്ട് പറമ്പിലും പറമ്പുകളിലും മിറ്റത്തുമൊക്കെയാണെങ്കില് ടയർ ടയറുകളിൽ കെട്ടികിടക്കുന്ന വെള്ളം ഒഴിവാക്കുക അല്ലെങ്കിൽ ചിരട്ട കുട്ടികള് കളിച്ചിട്ടും അങ്ങനെയൊക്കെ വലിച്ചെറിഞ്ഞ ഒരുപാട് ചിരട്ടകളും സാധനങ്ങളൊക്കെ ഉണ്ടാവും ചിരട്ടകള് പ്ലാസ്റ്റിക് ബോട്ടിൽസ് കവറുകള് അതിലൊക്കെ കെട്ടികിടക്കുന്ന വെള്ളവും കാര്യങ്ങളൊക്ക ഒഴിവാക്കുക പിന്നെ ഒരുപാട് കാടുപിടിച്ചു നിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ആ കാടും ഇതൊക്കെ വെട്ടി തെളിച്ചൊരു വെളിച്ചവും വൃത്തിയാക്കി എടുക്കുക പരമാവധി കൊതുകിന് മുട്ടയിടാൻ പറ്റുന്ന സാഹചര്യങ്ങളിണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ നീറ്റാക്കി വൃത്തിയായും നമ്മള് സംരക്ഷിച്ചെടുക്കുക കൊതുക് പെരുകിയുണ്ടാവുന്നതിൽ നിന്ന് അപ്പോൾ അതിനൊരു മാറ്റമുണ്ടാകും ഈ വെള്ളം കെട്ടികിടക്കുന്നതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ പിന്നെ പ്ലാസ്റ്റിക് കവറുകൾ സാധനങ്ങളൊക്കെ നമ്മൾ പറമ്പിലൂടെ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക ഒരു വേസ്റ്റ് കുഴി ഒരു വേസ്റ്റ് കുഴി ഒരു വീടിൻ്റെ മിറ്റത്തെവിടേലും കുഴിയായിട്ടോ അല്ലെ നമുക്ക് വെക്കാം ഇനി ഇപ്പൊൾ സ്ഥലമില്ലാത്ത ഒരു പ്രദേശ സ്ഥലാണെങ്കില് ചെറിയ എന്തേലും ബാസ്കെറ്റൊ കാര്യങ്ങളോ വെച്ചിട്ടൊക്കെ വേസ്റ്റ്കള് പരമാവധി അതില് സൂക്ഷിക്കുക പരക്കെ വലിച്ചെറിയാണ്ട് ചെറിയാണ്ട് വേസ്റ്റ്കളൊക്കെ അതില് സൂക്ഷിക്കുക പിന്നെ പ്ലാസ്റ്റിക് കവറുകളും സാധനകളുമൊക്കെ ആണെങ്കില് നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് കത്തിക്കാതെ കത്തിച്ച് അന്തരീക്ഷ മലിനീകരണമുണ്ടാകാതെ അത് നമ്മളുണക്കി സൂക്ഷിച്ച് എടുത്തു വെക്കുക പിന്നെ പ്ലാസ്റ്റിക് കളക്ഷണിപ്പോൾ ഒരുപാട് ഇതുകളുണ്ട് മുൻസിപ്പാലിറ്റികൾ ചിലത് വണ്ടി വന്ന് എടുത്തു പോവുന്നവരുണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നമ്മളെത്തികേണ്ട സ്ഥലങ്ങളുണ്ട് അതിൻ്റെ വണ്ടികൾ വരുമ്പോൾ അവരിൽ കൊടുത്താൽ അത് അങ്ങനെ എത്തിക്കാം അലക്ഷ്യമായി നമ്മള് പറമ്പുകളിലും അല്ലെങ്കിൽ കത്തിച്ച് കത്തിച്ച് വായുമലിനീകരണം ഉണ്ടാക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മളതിനനുസരിച്ച് കാര്യങ്ങള് ചെയ്യുക പിന്നെ കുടിവെള്ളം നമ്മള് കുടിക്കാൻ വെള്ളം എടുക്കുന്ന കിണറും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്ക് മഴക്കാലത്തിനു മുന്നോടിയായിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കുക പിന്നെ വെറുതെ കിടക്കുന്ന സ്ഥലത്തൊക്കെ വെറുതെ നമ്മള് വേസ്റ്റാക്കി ഇടാതെ അതിലൊരു പച്ചക്കറികളും പച്ചക്കറിത്തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെയായിട്ട് അങ്ങനെയൊക്കെ കൃഷി ചെയ്ത് അതിനെ നീറ്റായി കൊണ്ടുനടക്കുക പിന്നെ മുറ്റത്തും പുറത്തുമൊക്കെ പായലുപിടിച്ചും അങ്ങനെയൊക്കെയുള്ളെ സ്ഥലങ്ങലോക്കെയാണെങ്കില് ആ പായലും കാര്യങ്ങളൊക്കെ ചെത്തി വൃത്തിയാക്കി കക്കയോ കുമ്മായൊക്കെ ഇട്ട് അത് പായല് പിടിച്ച് വൃത്തികേടാകാത്ത രീതിയില് കൊണ്ടു നടക്കുക പിന്നെ കിണറിലെ വെള്ളാണെങ്കിലും എപ്പോഴും ബ്ലീച്ച് ചെയ്തിട്ടും അതിനനുസരിച്ച് നല്ല രീതിയില് കൊണ്ടു നടക്കുക കിണറിൻ്റെ ക്ളീനിംഗിലൂടെ തന്നെ പരമാവധി ആ വെള്ളത്തിൻ്റെ ശുചിത്വം നമുക്ക് കണ്ടെത്താൻ കഴിയും